ഞാൻ എനിക്ക് നോബൽ പ്രൈസ് നേടിയ ബഷീർ എന്ന എഴുത്തുകാരനെ എനിക്ക് വളരെയധികം ഇഷ്ടമാണ് കാരണം ബഷീറിൻ്റെ എഴുത്തുകളെല്ലാം വളരെ സാധാരണക്കാർക്കായിട്ട് വേണ്ടിയുള്ള എഴുത്തുകളായിരുന്നു അതുപോലെ സാധാരണക്കാരുടെ കഥകളായിരുന്നു അദ്ദേഹം പറയാറുണ്ടായിരുന്നത് പാത്തുമ്മയുടെ ആടും അങ്ങനെയൊക്കെയുള്ള ധാരാളം എഴുത്തുകൾ കൊച്ചുകൊച്ചു കഥകൾ എന്നാൽ കൊച്ചുകൊച്ചു ബാല്യകാല സഖിയൊക്കെ കൊച്ചുകൊച്ചു കഥകൾ എന്നാൽ അത് മനുഷ്യൻ്റെ ഹൃദയത്തിൽ അതിനെ സ്പർശിക്കാൻ കഴിവുണ്ടായിരുന്നു കാരണം അത് സാധാരണക്കാരനായ മനുഷ്യൻ്റെ ജീവിതമായിരുന്നു അതുകൊണ്ടുതന്നെ അദ്ദേഹം നോബൽ പ്രൈസ് ജേതാവായത് എന്ന് ഞാൻ പറയും നമ്മുടെ മലയാളത്തിൽ മികച്ച എഴുത്തുകാരൻ ഇദ്ദേഹം വളരെ വാർദ്ധക്യമായിട്ടും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഒരു പ്രണയം ഉണ്ടായിരുന്നു പ്രണയം അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തെ ചുറ്റിപ്പറ്റിയായിരുന്നു ആ പ്രണയമെല്ലാം പ്രണയം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ജീവിതത്തോട് തന്നെ പ്രണയമായിരുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അദ്ദേഹത്തിന് പ്രേമത്തെ കുറിച്ചല്ല പ്രേമം എപ്പോഴും എല്ലാവർക്കും ഉണ്ടാകുമല്ലോ എന്നാൽ അദ്ദേഹത്തിന് ജീവിതത്തോട് തന്നെ ഒരു പ്രണയമായിരുന്നു ജീവിക്കാനുള്ള ഒരു പിന്നെ ആഗ്രഹം അത് എല്ലാവരുടെയും ഉള്ളിൽ വരത്തക്ക വിധത്തിൽ കുഞ്ഞുക്കുഞ്ഞു കഥകളിലൂടെ കൊച്ചു കൊച്ച് പിന്നെ സന്ദേശങ്ങൾ നൽകിക്കൊണ്ടുള്ള ചെറിയ ചെറിയ കഥകൾ ആ കഥകള് മനുഷ്യൻ്റെ ഹൃദയത്തെ സ്പർശിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്ന് എനിക്ക് ഈ അവസരത്തിൽ പറയുവാൻ സാധിക്കും